മാർത്തോമാ നസ്രാണികളുടെ ഏറ്റവും ഉള്ള ഒരു കലാരൂപമാണ് മാർഗ്ഗംകളി എന്നു പറയുന്ന കല അത് നമ്മുടെ മാർത്തോമാ സ്ലെഹായുടെ പൂർവ്വചരിത്ര കഥകളിൽ നിന്നും തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കലാരൂപമാണ് മാർഗ്ഗംകളിയെന്ന് പറയുന്നത് അത് സ്ത്രീ പുരുഷ സ്ത്രീക്കും പുരുഷനും കളിക്കാവുന്ന ഒരു കലാരൂപമാണ് അതിൽ നമ്മുടെ ക്രിസ്ത്യാനികൾ മാർത്തോമ്മ നസ്രാണികളെല്ലാവരും പഠിച്ചിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു ഐതീഹ്യം പിന്നെ വരുന്നത് നമ്മുടെ പിന്നെ കേരളത്തിലെ നമ്മുടെ വരുന്ന കലാരൂപമാണ് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം അങ്ങനെ വരുന്ന കുറേ കലകളുണ്ട് കഥകളി അങ്ങനെ കഥകളി പിന്നെ കഥകളി എന്നിവ വരുന്ന കുറേ കലാരൂപങ്ങളുണ്ട് അത് നമ്മുടെ കേരളീയരുടെ കൂടുതൽ കേരളീയർക്ക് കേരളീയർ കേരളീയ ആൾക്കാർ ചെയ്യുന്ന ഒരോ കലാരൂപങ്ങളാണ് മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭരനാട്യം എന്നിവയെല്ലാം നമ്മളിപ്പോൾ തന്നെ കൂടുതൽ നമ്മുടെ കൊച്ചു കുട്ടികളെതൊട്ട് നമ്മൾ പഠിപ്പിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നൃത്തകലയാണ് നമ്മുടെ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ക്രിസ്ത്യൻസാണെങ്കിലും കൂടുതലൊന്നും മാർഗ്ഗംകളി പഠിപ്പിക്കാറുണ്ട് കൂടുതലും കൊച്ചുകുട്ടികളെ സഹായിക്കാറുണ്ട് പഠിപ്പിച്ചെടുക്കണം അത് അവരുടെ അവരുടെ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കുന്ന ഒരു മാർഗ്ഗരേഖയാണ് മാർഗ്ഗംകളി പിന്നെ മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിങ്ങനെ കുറേ കാര്യം കുറേ കുറേ കലാകാര്യങ്ങളും അതുപോലെതന്നെ ഇതൊക്കെ ഈ ഓരോ കലാ നൃത്തങ്ങൾ വരുന്നത് ഓരോ ഓരോ ജാതി മതസ്ഥർ ഭേതമന്യേ അതും ചെയ്യാറില്ല ഇത് ഇത് ഏത് രീതിയിൽ പെട്ടവർക്കാണെങ്കിലും ചെയ്യാവുന്ന ഓരോ കലാരൂപങ്ങളാണ് ഇത് ഇതിൽ ഓരോ ആൾകാരുടെ കഥയെ ആവിഷ്കരിച്ചിട്ടുള്ള ആവിഷ്കരിച്ചിട്ടുള്ള കഥ ആവിഷ്കരിക്കുന്ന ഓരോ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ നൃത്തകലകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതലും വിദേശ നാടുകളിൽ വിദേശ സഞ്ചാരികൾ വരുന്ന നമ്മുടെ കേരളത്തിലേക്ക് വന്നാലും അവർ കൂടുതലും കണ്ടുവരുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഓരോ കലാരൂപങ്ങളാണ് ഇവയെല്ലാം ഇവയെല്ലാമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കേരളീയർ ആണെന്ന് അറിയുന്നതുതന്നെ അവർ കൂടുതലും അഭ്യസിച്ചിരിക്കുന്ന കലകളുമാണ് ഈ കഥകളി മോഹിനിയാട്ടം ഭരനാട്യം കുച്ചിപ്പുടി കളരിപ്പയറ്റ് പിന്നെ മാർഗ്ഗംകളി പിന്നെ റംഭം റംഭം പാട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതലും കൂടുതലും കുറേ കാര്യങ്ങൾ അറിയാനും ഉണ്ട് അത് നമ്മുടെ സമൂഹത്തിലെ പാരം പാരം പരമ്പരാഗതമായിട്ടുള്ള നൃത്തകലകളാണ് ഇവയെല്ലാം അത് ഏത് ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളുമാണ് ഇത് ഇതിൽ ആരും എന്ന ജാതി ഭേതമന്യേ ഒന്നും എന്ന രണ്ടും വിഭജിച്ച് രണ്ട് ജാതി മതസ്ഥരുടെ വിഭജ വിഭജനവും അവിടെ കാണിക്കാറില്ല ഏത് രീതിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നത് അതുമല്ല വിദേശ്യ നാട്ടിൽ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രിയെന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തെക്കുറിച്ച് വിദേശ സഞ്ചാരികൾ പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രി പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും കൂടുതലും അവർക്ക് സഞ്ചാരി അവരത് സഞ്ചാരികൾക്ക് കൂടുതലും ആവിഷ്കരിച്ച് അവർക്ക് കണ്ട് രസിക്കാനും അവർക്കതിൽ ഉല്ലസിക്കുവാനും പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അതിൽ ഒരു കാര്യമാണ് നമ്മുടെ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ നൃത്തങ്ങൾ നൃത്തങ്ങൾ അതിൽ കുറേ പ്രത്യേക ഐതീഹ്യങ്ങളും കഥകളും എല്ലാം ഉള്ള പണ്ട് കാലങ്ങൾ നമ്മുടെ മാതാ പിതാ അവരുടെ പൂർവ്വികരും ചെയ്യ്തിട്ടുള്ള കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും എല്ലാം കഥയാക്കി എടുത്ത് അതിൽ നിന്നൊരു പാട്ടുണ്ടാക്കി അതിൽ നിന്ന് നൃത്തങ്ങളുണ്ടാക്കുന്നതാണ് ഈ നൃത്തരൂപങ്ങൾ നമ്മുടെ മാർത്തോമ്മ നമ്മുടെ മാർഗംകളി നമ്മുടെ മാർത്തോമ്മ സ്ലിഹാ നമ്മുടെ നാട്ടിലേക്ക് എത്തി മാർത്തോമാ സ്ലിഹായുടെ ജീവചരിത്രത്തെക്കുറിച്ച് പ്രത്യേകം അവർ എടുത്ത് പറഞ്ഞ് അതിൽനിന്നും കലകൾ കലകൾ ഉണ്ടാക്കി അതിൽനിന്നും എടുത്തിരിക്കുന്ന ഒരു കലാരൂപമാണ് മാർഗംകളി എന്ന് പറയുന്നത് അത് പ്രായമൊന്നും ഇല്ല മാർഗംകളി കളിക്കാനായിട്ട് പ്രത്യേകം പ്രായഭേദമന്യേ ഒന്നുമില്ല ഏത് പ്രായക്കാർക്കും ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒരു നൃത്തമാണ് മാർഗംകളി എന്ന് പറയുന്നത് അത് കുട്ടികൾക്കാകാം പുരുഷന്മാർക്കാകാം സ്ത്രീകൾക്കാകാം പ്രായമുള്ളവർക്കാകാം എങ്ങനെയും അത് ചെയ്യാവുന്നതാണ് നമ്മുടെ ക്രിസ്ത്യാനികൾ കൂടുതലും അത് പഠിച്ചിരിക്കുകയും വേണം മാർഗംകളി തന്നെ തുച്ഛമായ രണ്ട് മൂന്ന് പേർക്കൊക്കെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുവെച്ചാൽ നമ്മുടെ മാർത്തോമ്മ സ്ലീഹായുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ് നമ്മുടെ ഈ മാർഗംകളിയെന്ന് പറയുന്നത് മാർഗംകളി പിന്നെ നമ്മുടെ മുസ്ലിംസിനായിരുന്നു ദഫ് ദഫ്മുട്ട് ഒപ്പന അങ്ങനെ ഒത്തിരി ഒത്തിരി കലാരൂപങ്ങളുണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിൽ കൂടുതലും കണ്ടുവരുന്ന കൂടുതലും കേരളത്തിൽ കേരളീയതയുടെ ഏറ്റവും ഭംഗിയുള്ള കാര്യമാണ് നൃത്തങ്ങൾ എന്നു പറയുന്നത് നൃത്തം നൃത്തത്തിനും നമ്മുടെ നാടിനും എല്ലാത്തിനും ഭംഗിയായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ കലകളാണ് നമ്മുടെ കേരളീയരുടെ മെയിൻ കാര്യം